സ്റ്റാമ്പുകൾ നാണയങ്ങൾ കല്ലുകൾ എന്നിവ ശേഖരിക്കുന്നതിൽ കൂടുതൽ ആളുകൾ ഏർപ്പെടണമെന്ന് നിങ്ങ് ഞാൻ എനിക്കാഗ്രഹമുണ്ട് പക്ഷേ ഇതൊക്കെ കളക്റ്റ് ചെയ്യാനായിട്ട് അതിനുള്ള സമയവും സൗകര്യങ്ങളും വേണം കൂടുതൽ ഇതൊക്കെ ചെയ്യുന്നത് പിള്ളേരാണ് കുട്ടികളാണ് ഒത്തിരി ആളുകൾ സ്റ്റാമ്പ് കളക്ഷനൊക്കെ നടത്തുന്നുണ്ട് എൻ്റെ വീട്ടിലൊരു കൊച്ചുണ്ട് അതിനൊത്തിരി സ്റ്റാമ്പുകളുണ്ട് അതുപോലെ കല്ലുകൾ കല്ലുകളെന്ന് പറയുമ്പോൾ അത് തിളക്കമുള്ള എന്ത് വസ്തു കണ്ടാലും ആ കൊച്ചിന് വലിയ ഇഷ്ടമാണ് അത് ഡൈമണ്ട് ആണെന്നും പറഞ്ഞെടുത്ത് കല്ലുകളൊക്കെയെടുത്ത് സൂക്ഷിച്ചുവെയ്ക്കാറുണ്ട് പിന്നെ വിദേശ രാജ്യങ്ങളിൽ കോയിൻസുകളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പലതരത്തിൽ കല്ലുകളും നാണയങ്ങളുമൊക്കെ സൂക്ഷിച്ചു വെക്കുമ്പം ഒത്തിരി സ്റ്റാമ്പുകളൊത്തിരി ഞാനും നേരത്തെ സൂക്ഷിക്കുമായിരുന്നു ആൽബത്തിൽ ഒത്തിരി ആൽബങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെപ്പിന്നെ പ്രായമായിക്കഴിയുമ്പോൾ ഓരോരുത്തരും വീട്ടിലോരോ പുതിയ ഓരോ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ അവർക്കായിട്ട് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുമുണ്ട് അതെൻ്റെ കൈയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് പിന്നെ നാണയങ്ങളൊത്തിരി സൂക്ഷിച്ചുവെച്ചിരുന്നത് ഇതുപോലെത്തന്നെ നമ്മൾക്ക് കുഞ്ഞ് പേരക്കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ പുതിയ പിള്ളേർക്ക് ഇതെല്ലാം പറഞ്ഞുകൊടുത്ത് അവരെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് നല്ല കാര്യമാണ് പിള്ളേരുടെ ഓരോ തരത്തിലുള്ള അറിവുകൾ വർധിപ്പിക്കുന്നതിനു നല്ലതാണ് സ്റ്റാമ്പുകളോരോ രാജ്യത്തെ സ്റ്റാമ്പുകൾ ഓരോ തരം ഓരോരുത്തരുടെ പ്രത്യേകം പേരുകളിലുള്ള സ്റ്റാമ്പുകൾ ഇതൊക്കെ എടുക്കുന്നത് നല്ല കാര്യമാണ് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഒത്തിരിയും നല്ലൊരു കാര്യമാണ് ചെറുപ്പം മുതൽ കുട്ടികളെ അതിനെല്ലാം പരിശീലിപ്പിക്കുന്നത് നല്ലൊരു കാര്യമാണ് എന്നാണ് എനിക്ക് സ്റ്റാമ്പ് കളക്ഷനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് ഇതെല്ലാം ചെയ്ത് പിള്ളേരെ അവരുടെ സമയം ടി വി കാണാതെ മുഴുവൻ സമയവും ടി വിയിലെ ഓരോ പ്രോഗ്രാം കണ്ടു കാർട്ടൂണും അതും ഇതും കണ്ട് സമയം കളഞ്ഞ് വേസ്റ്റാക്കാതെ ഇങ്ങനെ അവർക്ക് ഉപകാരപ്രദമായ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ചെയ്യിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഇതിന് മാതാപിതാക്കളും ഒത്തിരി ശ്രദ്ധയും താൽപ്പര്യവും ചെലുത്തണമെന്നാണ് എനിക്കു പറയാനായിട്ടുള്ളത് അതുപോലെ അവർക്ക് സ്റ്റാമ്പുകൾ മേടിച്ച് കൊടുക്കുകയും അതുപോലെ എവിടുന്നെങ്കിലും ഒരു സ്റ്റാമ്പ് കണ്ടാൽ അത് ശേഖരിക്കാനും അത് കൊടുക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യണം അങ്ങനെ വേണം പേരൻസ് കുട്ടികളെ ഈ രീതിയിലേക്ക് താൽപ്പര്യം ഉള്ളവരാക്കി വളർത്തിയെടുക്കേണ്ടത്